ഇന്ത്യൻ മാധ്യമങ്ങളെ കുറിച്ച് എന്താ അഭിപ്രായംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കണക്കിനെന്നു പറഞ്ഞാൽ അത് നല്ലതാണ് നമ്മൾ കാരണം നമ്മൾ എല്ലാ സ്ഥലത്തിലെ വാർത്തകളും കാര്യങ്ങളും അറിയാനും നമുക്ക് പല വിവരങ്ങൾ കിട്ടാനും വാർത്ത അതായത് ന്യൂസ് ചാനലുകളാണെങ്കിലും പത്രം ആണെങ്കിലും വളരെ ഉപകാരമാണ് പിന്നെ നമുക്ക് അതേ പോലെ ചിന്താശേഷി വർധിപ്പിക്കാനും അപ്പോൾ പത്രങ്ങളാണ് നമ്മുടെ വായനാശീലം വർധിപ്പിക്കാനും അങ്ങനെ എല്ലാ എല്ലാം കൊണ്ടും ഉപകാരമാണ് പിന്നെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതായത് വാർത്ത കാണുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബുദ്ധി വികസിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഇവയിപ്പോൾ കൂടിയ അതായതൊരു തൊ നൂറ് ശതമാനതിലൊരു എൺപത് ശതമാനം എന്നുവച്ചാൽ ഇവർ പറയുന്നതൊക്കെ സത്യമായിരിക്കും പക്ഷേ ഇരുപത് ശതമാനം ഇവർ ഇവരുടേതായ രീതിയിൽ പലതും അതായത് കൂട്ടി ചേർക്കും അങ്ങനെയൊരു പ്രശ്നമുണ്ട് വാർത്താ വാർത്താ ചാനലാണെങ്കിലും പത്രവാർത്തയാണെങ്കിലും ചിലപ്പമത് അതായത് ഇവരിപ്പം ഒരാളിപ്പം മരിച്ചുന്നുണ്ടെങ്കിൽ അത് വേറെന്തെങ്കിലും ഒരു കാരണമായിരിക്കും പക്ഷേ അവർ അവരുടേതായ രീതിയിൽ വേറൊരു കാരണമാക്കി എടുക്കും അപ്പം അവർക്ക് അതിൻ്റെ പ്രശസ്തി കിട്ടാൻ വേണ്ടി അതിന് വേണ്ടി എനിക്കറിയാവുന്ന പ്രശസ്തമായ പത്രം ഏതെക്കെയാന്ന് വെച്ചാൽ മാതൃഭൂമി മലയാള മനോരമ ദേശാഭിമാനി അങ്ങനക്കെയുള്ള പിന്നെ ചാനലുകളെന്ന് പറഞ്ഞപ്പം ട്വന്റി ഫോറുണ്ട് പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് മാതൃഭൂമി ന്യൂസ് ഇങ്ങനൊള്ളതൊക്കെയാണ് കൂടുതലും പിന്നെ ജയ്ഹിന്ദ് അങ്ങനെയുള്ള ചാനലുകളൊക്കെ